ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിഭവങ്ങളെ രുചിയെന്ന് പറയുന്നത് ശരിക്കും മനസ്സറിഞ്ഞ് സ്നേഹം നിറച്ചിട്ട് ഫു ഭക്ഷണം വിഭവങ്ങൾ ഉണ്ടാക്കാനിന്നുണ്ടെങ്കിൽ പൊതുവേ ടേസ്റ്റ് കൂടുതലാവും പിന്നെ അതിന് ഓരോ ഭക്ഷണ ഭക്ഷണ വിഭവങ്ങൾക്കും പല ടേസ്റ്റുവാണ് അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഫുഡുണ്ടാക്കാൻ നോക്കുക പിന്നെ ഉപ്പ് കൂടുന്നതും മുളക് കൂടുന്നതും അതിനൊന്നും എമൗണ്ട് കറക്റ്റ് ഇടാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് വലുതായിട്ട് ഫുഡണ്ടാക്കാനൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ഉമ്മ ചെയ്യണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരക്കെ കറക്റ്റ് ആണ് ഫുഡുണ്ടാക്കണത് ഫുഡുണ്ടാക്കണത് രീതിയാണെങ്കിലും എന്താണ് അവർ ആ ഒരു പ്രൊസിജിയാറാണെങ്കിലും നല്ല രീതിക്കാണ് അവർ കൊണ്ട് പോകുന്നത് പിന്നെ ഫുഡുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടാതെ ഇരിക്കുക അതായത് ഉപ്പ് ഉപ്പായാലും മുളാകയാലും മഞ്ഞൾ പ്പൊടി ആയാലും ഒന്നും കൂടാതെ ഇരിക്കുക പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ വിഭവങ്ങൾ ഓരോ ടേസ്റ്റാണ് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മണ്ടാക്കണ കറിക്ക് എന്താ നല്ല ടേസ്റ്റാണ് അതിൽ ലെ എൻ്റെ ഉമ്മ ചീ ചെറിയ ഉള്ളി യൂസ് ചെയ്യൽ ഉപയോഗിക്കലുണ്ട് പിന്നെ ചമ്മന്തിയാണെന്നുണ്ടെങ്കിലും അതിൽ ഞമ്മൾ എന്ത് പച്ചമുളക് മാങ്ങാ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണത് ഓരോ ഡിഷിനും ഓരോ രീതിക്കാണ് ഉണ്ടാക്കേണ്ടത് ഇമ്മൾ പുതിയതായിട്ട് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ എങ്ങനെയാണ് ടേസ്റ്റ്ണ്ടാവാന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം അല്ലാതെ എന്താണ് പ്രത്യേകിച്ചൊരു തന്ത്രങ്ങളില്ല അതിന് എൻ്റെ എൻ്റെ അഭിപ്രായത്തിലങ്ങനെ തന്ത്രമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല സ്നേഹത്തോടെ കൂടി ഉണ്ടാക്കിയാൽ തന്നെ ആ ഭക്ഷണം നല്ലതായിരിക്കും പിന്നെ എല്ലാ ടേസ്റ്റും ഞമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം കാരണം ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലും അത് ഓരോ ദിവസം ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് നന്നാവും നന്നാവൂല്ലത് ഒരു പ്രശ്നമല്ല പ്രശ്നമാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റിന് വിഭവത്തിനൊക്കെ ഒരു പ്രശ്നമായി തോന്നുവൊള്ളൂ പക്ഷേ അതൊന്നുവല്ല രുചി രുചികരമാക്കാന് എപ്പോഴും നല്ലത് നമ്മൾ സ്നേഹത്തിൽ ഫുഡ് ഉണ്ടാക്കാം ദേഷ്യോന്നും വച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാതിരിക്കുക നല്ല രീതിക്ക് എമൗണ്ടും കാര്യങ്ങളും പിന്നെ ഓരോ ഡിഷിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം ഇപ്പം തക്കാളി കൂട്ടാൻ ഉണ്ടാക്കണ ടൈമിൽ എന്താണ് ഉള്ളീടാൻ പാടില്ല തക്കാളീം പച്ചമുളകൊക്കെ ഇടാൻ പാടുള്ളൂ അങ്ങനൊരു ഒരു വിവരണം ഒരു വിവരം വേണം ഒരു ഏത് ഫുഡുണ്ടാക്കണങ്കിലും അതേ എനിക്ക് പറയാനുള്ളൂ